ഗ്രാമീണ സമൂഹത്തിൽനിന്ന് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ബുദ്ധിമുട്ടനുഭവിക്കേണ്ടി വരുന്നു ഒന്നെന്ന് വെച്ചാൽ ഒന്ന് എങ്ങനെയാ ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണ് അത് പറഞ്ഞു കൊടുക്കുക ഒന്നും അറിയില്ല ഭാഷ അറിയില്ല അവരെ രീതികളറിയില്ല നമ്മൾ വളരെ നാടൻ രീതിയിൽ നിന്നും പെട്ടെന്ന് ഒരു എന്താ പറയുക പുതിയ എന്താ വളർച്ചയെത്തിയ വികസന രാജ്യത്തെത്തുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ അതുപോലെയുള്ളൊരു അവസ്ഥയായിരിക്കും പുറത്തേക്കു പോവുമ്പോൾ ഉണ്ടാവുക എങ്ങനെയാണ് എവിടുന്നാണ് എങ്ങനെയാണ് അത് പറഞ്ഞു മനസ്സിലാക്കുകയെന്നുള്ളൊരു എന്താ നമുക്ക് അത് പറ്റത്തില്ല അങ്ങനെ കുറേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളനുഭവിക്കുന്നുണ്ട് ആ കാര്യത്തിൽ പിന്നെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഗ്രാമീണ അവസ്ഥ സമൂഹത്തിൽനിന്ന് എന്നു പറയുമ്പോൾ വസ്ത്രങ്ങൾ വളരെ സാധാരണ രീതിയിലുള്ളത് പുറത്തേക്കു പോവുമ്പോൾ അത് ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മറ്റുള്ളവരെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കതൊരു ഞങ്ങൾ താഴ്ന്ന രീതിയിലുള്ള ആൾക്കാരാണോയെന്ന് വരെ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ വരാറുണ്ട് അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കാറുണ്ട് മാനസികമായി പിന്നെയുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആളുകളുടെ ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടിയും അങ്ങനെ ജീവിച്ച ആൾക്കാരായ് ആൾക്കാരാണ് അപ്പോൾ പുറത്തേക്കു പോവുമ്പോൾ മറ്റുള്ളവരുടെ സംസാര രീതിയൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു പ്രശ്നങ്ങൾ നമുക്ക് എന്തായാലും മാനസികമായി വരാറുണ്ട് പിന്നെ വീട് വിട്ടു പോവുന്നതിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്